ഞാൻ വീട്ടിൽ ചായ ഉണ്ടാക്കുന്നത് ചായ ഒഴിച്ച് പാത്രത്തിലെടുത്തിട്ട് അതിലേയ്ക്ക് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളച്ച് വരുമ്പൊഴത്തേക്കും ഇച്ചിരി ഇച്ചിരി ഏലയ്ക്ക പൊടിച്ചിട്ട് അതിലേയ്ക്ക് തേയിലപ്പൊടി തേയിലയിൽനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ ദേവൻ തേയിലയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആ പൊടി ഇട്ടിട്ട് അതു തിളച്ച് അതു നല്ലോണം ഇതായിട്ട് തിളച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും അത് ഓഫാക്കി വയ്ക്കും കുറച്ച് നേരം അതങ്ങനെ അടച്ച് വെച്ച് ആ തേയില എല്ലാം ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് പാകത്തിനുള്ള പഞ്ചസാരയും ഇട്ട് അത് ഒരു പാത്രത്തിലേയ്ക്ക് ഊറ്റി ചായ രണ്ട് മൂന്ന് ആവർത്തി അടിച്ച് ശരിയാക്കും എന്നിട്ട് അത് പാത്രത്തിലൊഴിച്ച് ഞാൻ എൻ്റെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും സെർവ് ചെയ്തു കൊടുക്കും ആ ചായയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്